ആ എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ട് ഹെഡ് ഫോൺസ് ആണ് ഇയർ ഫോൺസ് ഒക്കെ അതിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മോശമായതെന്താച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഹെഡ് ഫോൺസ് വേടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഒരു രണ്ടുമാസത്തിനുള്ളിൽ ഒരുമൂന്നുമാസത്തിനുള്ളിൽ ആ ഹെഡ് ഫോൺസിലെ ഒരു ഭാഗത്തെ ഇയർ പോഡ്സ് പോയിട്ടുണ്ടാകും നമുക്ക് പിന്നെ ആ സൈഡിൽ കേൾക്കാൻ പറ്റില്ല ഞാൻ കൂടുതലും വയേർഡ് ആയിട്ടുള്ള ഹെഡ് സെറ്റ് ഇയർ ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗം കേൾക്കില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പിരിച്ചുവെച്ചിട്ടൊക്കെ വേണം അപ്പുറത്തെ സൈഡ് കേൾക്കാൻ നമ്മൾ അഫ്ഓഡബിൾ ആയിട്ടുള്ള രീതിക്ക് വേടിക്കുമ്പോളുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു ഭാഗം കേൾക്കാതെ മറ്റേ ഭാഗം മാത്രം കേൾക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് ഈ അടുത്ത് ഞാൻ മേടിച്ച ഹെഡ് ഫോൺസിനും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭാഗം കേൾക്കാനില്ല പിന്നെ അടിയിലത്തെ ജാക്ക് ലൂസ് ആവുക നമ്മൾ ഫോണിലോട്ട് എൻ ഇൻസേർട്ട് ചെയുന്ന സമയത്ത് അത് ലൂസ് ആകുന്നതുകൊണ്ടു തന്നെ ഇയർ ഫോൺസ് കണക്ട് ആകാത്ത ബുദ്ധിമുട്ടും എല്ലാം എനിക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് നമുക്ക് വളരെ ഇറിറ്റേഷൻ തോന്നുന്ന ഒരു പ്രശ്നം ആണ് അങ്ങനെ വരുമ്പോൾ